ഹലോ അക്ഷയ ഞാനിപ്പോൾ ഒരു പെട്ട അവസ്ഥയിലാണ് എന്റെ പാസ്പ്പോട്ട് മിസ്സായിപ്പോയി ഇവിടെ കുറെ ആൾ അറിയാത്ത ആൾക്കാരാണ് വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളൂ അപ്പോൾ എന്താ ചെയ്യുക എന്ന് ഒരു ഐഡിയ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ അങ്ങനെ ഒരവസ്ഥയില് പെട്ടിരുന്നല്ലൊ അപ്പോൾ എന്താ ചെയ്തത് നീയ് ആർക്കെങ്കിലും അറിയുമോന്ന് ചോദിച്ച് നോക്കുമോ അപ്പോൾ ഇപ്പോൾ അത് ശെരിയാകുകയും വേണം പുറത്ത് പോകണമായിരുന്നു ഇന്നാണ് പരിപാടി ഇന്ന് അവിടെ എത്തണം എന്തേലും നിവർത്തിയുണ്ടൊ നിന്റെ ആങ്ങള ഇതുവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ലെ ടെക്നോളജിയൊക്കെ കാര്യങ്ങളറിയുന്ന ആളല്ലെ ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലെ എന്തേലും പെട്ടന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും പ്ലീസ്